ഇന്ത്യയിലൊക്കെ ഇന്ത്യയിൽ എല്ലാവർക്കും ചായ ഇഷ്ടമാണ് ചായ എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാരണം നമുക്ക് രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് ചായ കുടിച്ചാലേ നമുക്ക് ഉഷാറുണ്ടാകുകയുള്ളൂ അതേപോലെത്തന്നെ നമുക്ക് ഈവനിംഗും അല്ലാണ്ട് ഇടക്ക് ഇടക്ക് ചായ കുടിക്കുന്ന ഒരുപാട് പേരുണ്ട് അതായത് ഇടക്ക് ഇടക്ക് ചായ വേണമെന്നുള്ള ആൾക്കാർ ഒരുപാട് ഉണ്ട് പക്ഷെ നമുക്ക് ചായ എന്ന് പറഞ്ഞാൽ നമുക്ക് ചായയും കാപ്പിയും തന്നെ നമുക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ചായ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാൽ ചായ ആണെങ്കിൽ നമുക്ക് പാല് നമുക്ക് വേണ്ടത്ര വെള്ളമൊഴിച്ച് പാല് നല്ലവണ്ണം തിളച്ച് വരുമ്പം നമ്മൾ ചായ പൊടിയിടും ചായ പൊടിയിട്ടിട്ട് കുറച്ച് നേരം മൂടി വെക്കുമ്പം നമുക്ക് ചായ റെഡിയായി അങ്ങനെ ചായ എടുക്കുന്നത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചായ ഇങ്ങനെ എടുത്ത് നമ്മളിങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ അതായത് പാറണം ഗ്ലാസ്സിലേക്ക് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പതയോടെ വരും അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ചായ കിട്ടും പിന്നെ നമുക്ക് ചിലരൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏലക്ക കാര്യങ്ങൾ ഒക്കെ ഇടും ഏലക്ക ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല അടിപൊളി പിന്നെ ചായ ആയിരിക്കും നല്ല ഏലക്കയുടെ ടേസ്റ്റ് ചില ചിലർക്ക് ഇഷ്ടപ്പെടില്ല ചിലർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ചായ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് പിന്നെ അങ്ങനെയൊക്കെയാണ് ചായ നമുക്ക് ഇവിടെ ഉണ്ടാക്കാറ് അപ്പം ഓരോരുത്തർ ഓരോ തരത്തിലാണ് ചായ ഉണ്ടാക്കുക എന്നാൽ കട്ടൻചായ ഉണ്ടാക്കുന്നവരുണ്ട് കട്ടൻചായ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് പാൽ ഒഴിവാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചായ വെക്കാം അത്രയേ ഉള്ളൂ